ഇതാരായിരുന്നു സംസാരിക്കുന്നത് ഹലോ ക്ലിയർ ആയില്ല ഒന്നും കൂടെ പറയാമോ അ ഓക്കേ ഓക്കേ പറഞ്ഞോളൂ എന്താണ് മാം വിളിച്ചത് അ അതെ നന്നായിട്ട് പോകുന്നുണ്ട് കുട്ടി നന്നായിട്ട് പഠിക്കുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ല അ കഴിഞ്ഞ സെമിൽ കുറച്ച് ഉണ്ടായിരുന്നു അത്രമാത്രമേ ഉള്ളു ഓ അറിയാം അറിയാം അറിയാം അ അതെന്ത് പറ്റി കോളേജിലൊക്കെ എല്ലാ പരിപാടിയിലും വളരെ ആക്ടിവായിട്ടാണല്ലൊ

ഓ അവ എനിക്കവളുടെ ഫ്രണ്ട്ഷിപ്പ് ഗാങിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു ആ കോളേജിൽ വന്നു കഴിയുമ്പോൾ കുട്ടി വളരെ ആക്ടിവാണ് ഇവിടെ കുഴപ്പമൊന്നും ഇല്ല

അ ഉണ്ടല്ലോ ഇവിടെ കൗൺസിലിങ് ഉണ്ട് നമ്മൾ എന്തെങ്കിലും ഇപ്പം അതിനുമാത്രമുള്ള പ്രശ്നം തോന്നിയില്ല അതാണ് ഞാൻ അവളെ കൗണ്സിലിങ്ങിന് റെഫർ ചെയ്യാതിരുന്നത് അതെ അതെ അ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ വിളിച്ചു എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവൾ വീണ്ടും ഡള്ളായി പോവും ആ നമുക്ക് അത് ആ വഴി നമുക്ക് നോക്കാം ഇപ്പം മാം പറഞ്ഞത് പോലെ ഇവിടെ എല്ലാ കുട്ടികൾക്കും പൊതുവെ കണ്ടുവരുന്ന ഒരു ഒരു ഒരു ഇപ്പഴത്തെ അവസ്ഥ നിങ്ങൾക്കും അറിയാമല്ലൊ അപ്പം ഞങ്ങൾ ഈ വെക്കേഷൻ ടൈമിലൊരു ക്യാമ്പയിൻ ഒക്കെ സംഘടിപ്പിക്കാമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു ആ മെൻറ്റൽ ഹെൽത്തും പിന്നെ ടീനേജ് പ്രായമൊക്കെ കഴിഞ്ഞ കുട്ടികളാണല്ലോ അപ്പം അവരിപ്പം വഴിതെറ്റി പോകാനായിട്ട് ഒരു സാധ്യതയേറെയാണ് അവർക്കൊരു കരിയർ ഗൈഡൻസും പോലെയും പിന്നെ എല്ലാത്തിനും വേണ്ടിയിട്ടൊരു ട്രെയിനിങ് പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കാം എന്ന് ഓർത്താണ് ഓ ഹോ അതെ അതെ എല്ലാവരും കുറച്ചുപേരൊക്കെ ഞങ്ങൾക്ക് ഒരു ഇ റെക്കമെൻഡേഷൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ പ്രിൻസിപ്പലെന്ന നിലയിൽ എനിക്കും കുറെ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യണമല്ലോ അപ്പം അതിന് ആ അപ്പോൾ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ വീട്ടിൽ വന്നു കഴിയുമ്പം പ്രശ്നമൊന്നും ഇല്ലല്ലോ ആ ഓക്കേ ചിലപ്പോൾ എന്തെങ്കിലു ഇപ്പം എക്സാമൊക്കെ അയതിൻ്റെ ടെൻഷൻ അങ്ങനെ ഒക്കെ കാണും നിങ്ങളും കൂടതലായിട്ട് അവളോടൊന്ന് ഇൻ്റെറാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആ ആ ഓക്കേ ഞങ്ങളും പിന്നെ വന്നു കഴിയുമ്പോൾ അവളെ ശ്രദ്ധിച്ചുകൊള്ളാം ഓക്കേ ആ ഇല്ല ഇല്ല ഇല്ല വളരെ അധികം സന്തോഷം ഞങ്ങൾക്ക്